അഞ്ച് ആറ് രണ്ടായിരത്തിരണ്ട് പതിനാല് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത് ഏഴ് നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് അഞ്ച് ആറ് രണ്ടായിരത്തി ഒന്ന്